കേരളത്തിലെ സാംസ്കാരിക പൈതൃകം നോക്കുകയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങള് പറയാനുണ്ടാവും അതില് നമുക്ക് ആഘോഷങ്ങൾ വരാം നമ്മുടെ വസ്ത്ര ധാരണം വരാം നമ്മുടെ ഭക്ഷണരീതി വരാം അതുപോലെ പല വിവിധ പല കാര്യങ്ങളും അതില് നമുക്ക് കടന്നു വരുന്നുണ്ട് നമ്മള് ആഘോഷങ്ങള് നോക്കുകയാണെന്നു പറയുമ്പോൾ കേരളീയര് ആഘോഷങ്ങളില് മെയിന് അല്ലെങ്കില് ഏറ്റവും പ്രധാന്യമുള്ളൊരു ആഘോഷമാണ് ഓണാഘോഷം എല്ലാവരും കേരളത്തില് അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാവരും ഇപ്പോൾ പുറത്തു പോയവരാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെ എവിടെയുള്ള ആള്ക്കാരാണെങ്കിലും ഓണത്തിന് അവര് എങ്ങനെയെങ്കിലും നാട്ടില് എത്താനൊരു ആഗ്രഹമുണ്ടാവും അല്ലെങ്കില് വിദേശത്താണെങ്കില് പോലും ഓണം അവര്ക്ക് ആഘോഷിക്കാണ്ടിരിക്കാന് പറ്റില്ല കാരണം ഓണം അത്രയും നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു സംവിധാനമാണ് ഓണത്തിൻ്റെ പൂക്കളമിടല് ഓണസദ്യ ഓണപ്പാട്ട് ഓണക്കളികള് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തില് അല്ലെങ്കില് മലയാളികളുടെ മനസ്സില് എന്നും ഓര്മ്മയില് നിൽക്കണ കുറേ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മുടെ വസ്ത്രധാരണം നോക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ മുണ്ട് കേരളത്തിലെ മുണ്ട് ഷര്ട്ട് ആ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ അവര്ക്ക് സ്ത്രീകള്ക്കാണെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കില് സാരി അത് ഒരു കേരളീയ ഒരു കേരളീയമായ ആള്ക്കാരുടെ ആകുമ്പോൾ കേരള കേരളത്തില് ജീവിക്കുന്ന മലയാളിയുടെ ഒരു ഐഡെന്റിറ്റി എന്ന് വേണേൽ നമുക്ക് പറയാം മുണ്ടും ഷര്ട്ടും സാരിയൊക്കെ കാരണം നമുക്ക് ആ ഒരു കേരള തനിമയില് ആ ഒരു മുണ്ടും ഷര്ട്ടുമൊക്കെ ഇട്ട് വരന്നൊരാളെ കാണാൻ നല്ലൊരു ഐശ്വര്യവും നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നമുക്കിപ്പോൾ വേറെ ഇനി നമ്മള് അടുത്തൊരു കാര്യം നോക്കുകയാണ് ആഘോഷങ്ങള് അല്ലെങ്കില് ഇത് നോക്കുകയാണെങ്കിൽ ഉത്സവങ്ങളുടെ കാര്യം നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് ഏറ്റവും മികച്ചതും ആര്ക്കും മറക്കാന് കഴിയാത്തതുമായ ഒരു ഉത്സവമാണ് തൃശ്ശൂര് പൂരം ഏത് മലയാളിയും ആരോട് ചോദിച്ചാലും നമ്മക്ക് തൃശ്ശൂര് പൂരം ആ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ലായെന്നു പറഞ്ഞാലും തൃശ്ശൂര് പൂരത്തിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതെങ്ങനെയാണ് എവിടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പക്ഷെ നമുക്ക് തൃശ്ശൂര് പൂരത്തിനെ ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവുക പറഞ്ഞ് നമുക്ക് അനുഭവിക്കാന് പറ്റില്ല അത് കണ്ടു തന്നെ ആസ്വദിച്ചു തന്നെ നമുക്കത് അതിനെക്കുറിച്ച് അറിയാന് പറ്റുള്ളൂ പക്ഷെ നമുക്കൊരു പ്രാവശ്യം കണ്ടതുകൊണ്ടൊന്നും തൃശ്ശൂര് പൂരം മുഴുവനായിട്ട് നമുക്കറിയാന് പറ്റില്ല കാരണം തൃശ്ശൂര് പൂരത്തിന് അത്രയധികം കാര്യങ്ങള് നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം കണ്ടതുകൊണ്ട് നമുക്ക് ആ തൃശ്ശൂര് പൂരത്തിനെ മുഴുവനായിട്ട് മനസ്സിലാക്കാന് പറ്റില്ല ഒന്നു രണ്ടു തവണ മുഴുവനായിട്ടും നിന്ന് അത് മനസ്സിലാക്കേണ്ട കുറേ അധികം കാരണങ്ങള് ഇപ്പോൾ വെടിക്കെട്ടാണെങ്കിലും കാഴ്ച്ചപ്പൂരം അതുപോലെ ആനപ്പൂരം അങ്ങനെ ഈ തൃശ്ശൂര് പൂരത്തിൻ്റെ ഭാഗമായിട്ട് കുറേ അമ്പലങ്ങളുടെ കുറേയധികം അമ്പലങ്ങളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ എല്ലാം കണ്ടു വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം മിനിമം കണ്ടാലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാന് പറ്റുള്ളൂ അങ്ങനെ നമുക്ക് വിവിധ തരങ്ങളിലെ നമ്മുടെ സംസ്കാരവും പൈതൃകവും ഇനി നോക്കുകയാണെങ്കില് കുറെ അധികം കാര്യങ്ങളും കൂടിയുണ്ട് ഇപ്പോൾ നമ്മളത് ഇപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മളിതാക്കണില്ല ഇപ്പോൾ തല്ക്കാലം നമ്മളിവിടെ നിര്ത്തുന്നു